ഞങ്ങളുടെ പ്രദേശത്തെ ലഭ്യമായ പത്രങ്ങൾ മനോരമ മാതൃഭൂമി ദീപിക ഇതാണ് മെയിനായിട്ടുള്ള പത്രങ്ങൾ ഇതിൽ ഞാൻ മനോരമയുടെ വരിക്കാരനാണ് മെയിനായിട്ട് ഞാൻ ആദ്യത്തെ ഫ്രണ്ട് പേജ് വരുന്ന ഹെഡ്ലൈൻസ് വായിക്കും പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കും ആദ്യമേ ഹെഡ്ലൈൻസ് മൊത്തം വായിച്ചൊന്ന് തീർക്കും മെയിനായിട്ട് എനിക്ക് ഇഷ്ടം നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളാണ് അത് തന്നെ അത് വിശധമായിട്ട് വിവരിക്കുന്നതാണ് ഞാൻ വായിക്കാറുള്ളത് പിന്നെ രാഷ്ട്രീയത്തിൽ വലിയ വലിയ താല്പര്യമൊന്നുല്ലാത്തതു കൊണ്ട് രാഷ്ട്രീയത്തിലുള്ള വാർത്തകളൊന്നും അധികം വായിക്കാറില്ല എന്നാലും അതിൻ്റെ ഹെഡിങ്ങ് ഞാൻ നോക്കാറുണ്ട് പിന്നെ എനിക്ക് ഈ പേപ്പറുകളിലെ ഈ അവസാന കോളം അല്ലെങ്കിൽ ഈ നിര്യാതരായ എന്നുള്ള കുറച്ചു കോളമുണ്ട് അതിൽ നമ്മുടെ ബന്ധപ്പെട്ട ബന്ധുക്കളോ ആരെങ്കിലും മരിച്ച് പോയവരുടെ ഫോട്ടോയോ അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യും അത് രണ്ടാമത്തെ ചടങ് പിന്നെയുള്ളത് ഈ വാർത്തകൾ കൂടെ ഈ പേപ്പറുകാർ കൂടുതൽ എല്ലാം പയുകയാണെങ്കിൽ ഞാൻ ഒരു അതിനോട് അവരോട് ചിലപ്പോൾ അവർ ഏതെങ്കിലും പാർട്ടിയോടെ ചായ്വോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നതാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ടിവിയിൽ അതിൻ്റെ ഓരോ ചാനലുകാരുടെ ന്യൂസ് കൂടെ അവരുടെ അവലോനം എന്താണെന്നും അത് നോക്കാറുണ്ട് അങ്ങനെ പ്രധാനമായിട്ടുള്ള കോളം പിന്നെ പത്രാധിപർക്കുള്ള കത്തുകുകളെ അതൊക്കെ ഒന്നും വായിച്ചു നോക്കാറുണ്ട് പിന്നെ എന്താണ് പറയുന്നത് അവിടെ മെയിനായിട്ട് ഉള്ളത് വലിയ അപകടം നടന്ന ന്യൂസുകൾ വലിയ ഈ പോലീസ് കേസുകളെ അങ്ങനെയുള്ളതൊക്കെ എന്താണ് നടന്നത് അതിൻ്റെ ശരിക്കുമുള്ള വിവരങ്ങളൊക്കെ ഒന്ന് വായിച്ചറിയാറുണ്ട് അതാണ് മെയിനായിട്ട് പേപ്പറുകളിൽ കൂടി കാണാറുള്ളത് പിന്നെ അധികം ഈ പേപ്പറുകളൊന്ന് രാവിലെ കിട്ടുമ്പോൾ അതൊന്ന് വായിച്ചെങ്കിൽ തന്നെയും ഞാൻ ശരിക്കും വാർത്തയ്ക്ക് വേണ്ടി ഡിപ്പെെൻഡ് ചെയ്യുന്നത് നമ്മുടെ ടിവിയിൽ വരുന്ന ന്യൂസ് ചാനൽസാണ് അത് പല പല ചാനലുകൾ മാറി മാറി കാണും അതിൽ നിന്ന് മനസ്സിലാവും ഓരോരുത്തരുടെയും വ്യൂ പോയിൻ്റ് അതിൽ നമുക്കൊരു ശരിക്കും നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവരെ ഏതാണ് വാർത്ത ശരി എന്നള്ളത് കാരണം ഓരോരുത്തരും അവരുടെ ചായ്വിന് അനുസരിച്ചുള്ള സംസാരമേ സംസാരിക്കാറുള്ളൂ ഇ ഏഷ്യാനെറ്റിൽ കാണുന്നത് ആയിരിക്കത്തില്ല ചിലപ്പം മാതൃഭൂമി ചാനല് കാണുന്നത് അല്ലെങ്കിൽ മനോരമ ചാനലിൽ കാണുന്നത് അങ്ങനെ അതും ചെക്ക് ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് വളരെ സ്പോർട്സ് ന്യൂസും ചിലപ്പോഴൊക്കെ വാച്ച് ചെയ്യാറുണ്ട് പ്രത്യേകിച്ചു ഇന്ത്യ ഏതെങ്കിലും ലോകരാഷ്ട്രങ്ങളോടുള്ള മത്സരത്തിലോ അല്ലെങ്കിൽ ഒളിമ്പിക്സ് അതുപോലെയുള്ള മത്സരങ്ങൾ അതല്ലെങ്കിൽ ക്രിക്കറ്റിൽ വേൾഡ് കപ്പിൽ പോകുന്നുണ്ടെങ്കിലും അങ്ങനത്തെ ന്യൂസുകളൊക്കെ ഞാൻ നോക്കാറുണ്ട് അതാണ് മേതി ഇഷ്ടം താല്പര്യമുണ്ട് പിന്നെ നമ്മൾ ഏതെങ്കിലും നമ്മൾ കാർഡ് എടുത്ത് ഇപ്പം അടുത്ത കാലത്ത് ചെസ് ചാമ്പീൻ ഇന്ത്യക്കാരൻ ഒരാൾ ചെസ് ചാമ്പ്യനായതിൻ്റെ ന്യൂസ് അതൊക്കെ താല്പര്യത്തോടെ വായിക്കാറുണ്ട് ഇന്ത്യക്കാർക്ക് നേട്ടം ഉണ്ടാവുന്ന കാര്യങ്ങളും അവരെ എവിടേക്ക് തിളങ്ങി നിൽക്കുന്നു എന്നുള്ളതൊക്കെ പേപ്പറിൽ അറിയാൻ എനിക്ക് വലിയ ആകാംഷ ഉണ്ട് അങ്ങനെയാണ് പേപ്പറിനോട് എനിക്ക് ഇത്ര താല്പര്യം രാവിലെ ഒരു എന്നും ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും പേപ്പറിന് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കാറുണ്ട് പിന്നെ അത് അത് അത്രയൊക്കെയാണ് പേപ്പറിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് പൊതുവേ പ്രത്യേക പിന്നെ അധികം കാണാറുള്ളത് ഞായറാഴ്ചത്തെ സമയം ഞായറാഴ്ച ദിവസം ഞാൻ കൂടുതൽ സമയം വിനിയോഗിക്കും കാരണം എനിക്ക് അത് മനോരമയുടെ സപ്ലിമെൻറ്റ് വരുന്ന ഓരോ ന്യൂസ് എനിക്ക് ഇഷ്ടമാണ് അത് അത് ഞാൻ ഓരോ ആഴ്ചയിലും അതിൻ്റെ വൈവിധ്യമുണ്ട് അതെനിക്ക് ഇഷ്ടമാണ് അത് ഞാൻ വായിക്കാറുണ്ട് അതിൽ നിന്ന് ഒന്ന് നമുക്ക് ഒരു ആളിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കിട്ടും അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കൂടുതൽ കിട്ടും അത് എനിക്ക് കേൾക്കാൻ താൽപര്യം അല്ലെങ്കിൽ അറിയാൻ താല്പര്യമള്ളതുകൊണ്ട് അത് കൂടുതൽ ഞാൻ വായിക്കാറുണ്ട് വായിക്കാറുണ്ട് ഇത് ഇത് ഇതല്ലാതെ പിന്നെയുള്ളത് ഏതെങ്കിലും ഇപ്പം തലേ ദിവസം തന്നെ ഹെഡ്ലൈൻസ് ആയിട്ട് നമ്മൾ ന്യൂസിൽ കാണും ടിവിയിൽ കാണും ഇന്ന ആൾ നിര്യാതനായി അല്ലെങ്കിൽ ഇന്ന ഇന്ന സംഭവം നടന്നു എന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നമുക്ക് ചാനൽ കൂടെ അറിയാൻ പറ്റത്തില്ല അത് പിന്നെ പിറ്റേ ദിവസം രാവിലെ പേപ്പർ വരുമ്പം ആദ്യമായിട്ട് നോക്കുന്ന ആ ആ ന്യൂസായിയിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസും വായിച്ചു മനസ്സിലാക്കും ഇതൊക്കെയാണ് ഞാൻ പേപ്പറിൽ നിന്ന് പ്രിയപ്പെട്ട കോളമൊക്കെ ഇതൊക്കെ തന്നെയാണ്